പഴയ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ റേഡിയോ ന്യൂസ്പേപ്പർ തുടങ്ങിയ ഒ മാധ്യമങ്ങളാണ് പണ്ട് നിലനിന്നിരുന്നത് എന്നാൽ നവ മാധ്യമങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം ഇൻ്റർനെറ്റ് അതുപോലെ ഉള്ള മ് ടി വി ടി വി ഇപ്പം നവ മാധ്യമം എന്ന് പറയാൻ പറ്റില്ല അത് ഒരുതരം മെഴ് മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മാധ്യമം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ നവ മാധ്യമ ഏറ്റവും പുരാതന നവമാധ്യമം എന്ന് പറഞ്ഞാൽ ഇൻറർനെറ്റ് അതുപോലെ തന്നെ എ ഐ സൗകര്യങ്ങൾ ഒക്കെ ഒത്തിരി ഒത്തിരി ആ അപ്ഡേറ്റ് ഒത്തിരി അപ്ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു കാലാന്തരത്തിലൂടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന ഈ നവ മാധ്യമങ്ങളിൽ തന്നെ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഓ ഇതുപോലും അവർക്ക് അപ്ഡേ വളരെ പഴയ മാധ്യമങ്ങളായിട്ട് അവർക്ക് അതിലും വലിയ കൂടുതൽ എന്തൊക്കെയോ കൂടുതൽ ഇപ്പം ഫൈവ് ജിയുടെ ഒക്കെ കാലഘട്ടം വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞപ്പം നമുക്ക് പഴയ മാധ്യമങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒന്ന് ഡീപ്പ് ആയിട്ട് അതിനെ ഒക്കെ നമ്മൾ അതിലകത്ത് നടക്കുന്ന പത്രവാർത്തകളെ ഒക്കെയാണ് നമ്മൾ ഡീപ്പ് ആയിട്ട് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ എല്ലാത്തിനെയും തോണ്ടിത്തോണ്ടി വിടുന്നോരു സംസ്കാരം ആണ് കാണിക്കുന്നത് ഒന്ന് നമ്മൾ ഡീപ്പ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ പഴയ മാധ്യമങ്ങളിലും പഴയ ആ ഒരു ജീവിത ശൈലികളിലും കൂടെ കഴിഞ്ഞ് പോയിരിക്കുന്നവർ പുതിയ മാധ്യമങ്ങളെ അല്ലെങ്കിൽ പുതിയ ഓരോ നവ മാധ്യമ സങ്കല്പങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് അത് ശരിയല്ല കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഒരു ഈവൻ ഒരു നമ്മുടെ മൊബൈൽ പോലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനകത്തൊരു നമുക്ക് ഈ ലോകത്തെ മുഴുവൻ അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ലോകത്തിലുള്ള എല്ലാ ന്യൂസുകളെ കുറിച്ചും എല്ലാ ഇപ്പം തന്നെ അന്താരാഷ്ട്ര ഇപ്പം പിന്നെ റഷ്യയുടേയും അക്ബറേ ഉയർച്ചയും എന്നാ വേറെ ഒരു രാജ്യവുമായിട്ടുള്ള യുദ്ധമാണെങ്കിലും ഇപ്പം പിന്നെ അമേരിക്കയുടെ ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പം ഇസ്രായേലിലെ പ്രശ്നങ്ങൾ ആണെങ്കിലും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും ഇപ്പം തന്നെ കൽക്കട്ടയിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുകൊന്ന കേസ് ഒരു പത്ത് അറുപത് വർഷം മുമ്പാണെങ്കിൽ നമ്മളൊന്നും അറിയത്തുപോലുമില്ല ഇങ്ങനെയൊരു പ്രശ്നം പോലും നമ്മളൊന്നും അറിയില്ല വൈ ഇപ്പം തന്നെ ഇന്നലെ ഇവിടെ പബ്ലിഷ് ചെയ്തത് ആണ് ഹേമാ കമ്മീഷൻ്റെ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ അതിത്രയും മനുഷ്യൻറെ മനസ്സിലേക്ക് ടച്ച് ചെയ്യാൻ കാരണം തന്നെ അത് മാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്നതുകൊണ്ടാണ് പക്ഷേ പഴയ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വായിക്കുന്ന വളരെ വളരെ അപൂർവ്വം അതായത് സ്ത്രീകൾ പണ്ട് വായിക്കാറില്ല പത്രങ്ങൾ വായന ഒക്കെ സ്ത്രീകൾക്ക് വളരെ കമ്മി ആയിരുന്നു അത് കൂടുതലായിട്ട് പുരുഷന്മാരുടെ ഒക്കെ തന്നെ ഒരു അവകാശമായിട്ട് അവർ ഇത് വെച്ച് വീട്ടിലെ പത്രം വായിക്കും സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സംസ്കാരം ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അന്നൊന്നും ഇതിനേക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോഴത്തെ യുവ തലമുറയാണെങ്കിലും ഈ പുതിയ മാധ്യമ സ കൂടുതലിലൂടെ തന്നെ ഇതൊക്കെ കൂടുതൽ അറിയുന്നുണ്ട് അപ്പം നമുക്കും നമ്മുടെ പ്രതികരണശേഷികൾ കൂടുതൽ വർദ്ധിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ലോകത്തേക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളും നമ്മല ഒത്തിരി ഡെവലപ്പ്ഡ് ആകാൻ പുതിയ ന നവ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമുക്ക് പ്രതികരിക്കാനൊരു മേഘല നമുക്കതിന് മുൻപേ തുറന്നുകിട്ടുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നവർ നമ്മൾ പറയുക അത് കാണിച്ചത് തെറ്റല്ലേ അവന്മാർക്ക് എങ്ങനെ കഴിയാവോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ടൊരു ആ സ് മാപ്പ് നമ്മൾ അറിയുന്നുണ്ട് സമയം ഇപ്പം പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ അറിയില്ല എല്ലാവരും ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെ ചൂണ്ടി എല്ലാവരും കുറ്റം പറയും കാരണം വെച്ചാൽ ഇന്നിപ്പം പിള്ളേർ നെറ്റിലൂടെ നെറ്റ് നോക്കി അതെല്ലാം പിഴച്ച് പോകുന്നെന്ന് പറയും പക്ഷേ അതുകൊണ്ടല്ല കാരണം ഈ പണ്ടൊക്കെ ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല ഇന്ന് ചെയ്യുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പി ഒരു കാമ്പ് അതെല്ലാം അതുണ്ട് എല്ലാ പഴയ മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി ഡെവലപ്പ്ഡ് ആയ ഒരു മാധ്യമ സൃഷ് മാധ്യമ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ ഏത് മാധ്യമ കാലഘട്ടത്തിലാണെങ്കിലും ഏതിൽ ഏതിലും നന്മയും തിന്മയും ഉണ്ട് ഏത് തിന്മകളെ മനസ്സിലാക്കുവേം നന്മകളെ കണ്ടെത്തി ആ നന്മയ്ക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുവേം ചെയ്യുമ്പോഴാണ് ഒരു ഒറിജിനൽ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്